ആ പറയൂ ആ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആ ആ കൊറോണ ടെസ്റ്റ് ചെയ്തായിരുന്നോ ആ എന്നാൽ അതൊന്ന് ചെയ്ത് നോക്കി കൂടായിരുന്നോ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ആണോ എന്ന് അറിയില്ലല്ലോ കൊറോണ ആയിട്ടാണോ എന്ന് ഇപ്പം ഒട്ടുമിക്ക പേർക്കും ഇപ്പോൾ കൊറോണ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ ആ അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്ക് പിന്നെ വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്

കാണിക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എന്തായാലും ഒന്ന് ആവിയൊക്കെ ഒന്ന് പിടിക്ക് ആവിയൊക്കെ ഒന്ന് പിടിക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോസറ്റീവ് ആണൊ എന്നൊന്ന് നോക്കി നോക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എന്നിട്ട് അഥവാ പോസിറ്റീവ് ആണെങ്കിൽ ആശ വർക്കറെ അറിയിക്കുക അവർ മരുന്നൊക്കെ കൊണ്ടുത്തരും പാരസെറ്റാമോൾ ഉണ്ടാവും മൂന്ന് നേരം കഴിക്കുക പിന്നെ നല്ലവണ്ണം പിന്നെ അധികമിപ്പം ആരോടും സംസാരിക്കുക ഒന്നും വേണ്ട റൂമിൽ തന്നെ ഇരുന്നോ ചിലപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രശ്നം ആവേണ്ടല്ലോ ആ ആ അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ ഭക്ഷണം കഴിക്കുക നന്നോണം പിന്നെ നല്ലവണ്ണം ആവി പിടിക്ക് മൂന്ന് നേരം ആവി പിടിക്ക് ആ ആ അല്ല എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ ഇപ്പോൾ എന്താ എന്ന് അറിയാണ്ട് ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും അല്ല നമുക്ക് ഇപ്പം കൊറോണ വന്നുകഴിഞ്ഞാൽ വേറെ അസുഖങ്ങളായി മാറാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ചിലപ്പോൾ ക്വാറന്റൈനിൽ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ